ഞാൻ പുതിയ പുസ്തകങ്ങളായിട്ടും അല്ലെങ്കിൽ പഴയ പുസ്തകങ്ങൾ സെക്കൻഡ് ഹാൻഡ് എന്ന രീതിയിലും ഞാൻ വാങ്ങിക്കാറുണ്ട് അതായത് വില കൂടിയ പുസ്തകങ്ങൾ ഞാൻ വിലക്കുറവിൽ കിട്ടാനായിട്ട് ആരെങ്കിലും ഉപയോഗിച്ച് ബുക്കുകൾ വിൽക്കുന്ന സ്ഥലങ്ങളുണ്ട് അവിടെ നിന്ന് ഞാൻ ബുക്ക് മേടിക്കും അങ്ങനെ മേടിക്കുന്നത് ഈ വലിയ വലിയ നോവലുകൾ അല്ലെങ്കിൽ ഈ കഥ ബുക്കുകൾ അങ്ങനെത്തെയുള്ള കാര്യങ്ങളായിരിക്കും അതൊക്കെ വില കൂടുതലായിരിക്കും അങ്ങനെയുള്ള ബുക്കുകളായിരിക്കും ഞാൻ ഈ ഉപയോഗിച്ച പുസ് ബുക്കിൻ്റെ വില കുറച്ച് മേടിക്കുന്നത് പിന്നെ ആവശ്യമുള്ള ബുക്കുകൾ അല്ലെങ്കിൽ ഇപ്പോൾ ഓരോ വർഷം കഴിയുമ്പോഴും എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ വരുന്ന ബുക്കുകൾ ഇപ്പോൾ എൻസൈക്ലോപീഡിയ അല്ലെങ്കിൽ ഓരോ ഗൈഡ് അല്ലെങ്കിൽ കരിക്കുലം ഓരോ ഇയറിലുള്ള കരിക്കുലം സിലബസ് ഒക്കെ അങ്ങനെ ചേഞ്ചോ ചേഞ്ച് വരുന്ന ബുക്കുകളെല്ലാം പുതിയതായിട്ട് പുതിയ ഷോ ഷോപ്പിൽ പറയുന്ന വില കൊടുത്താണ് വാങ്ങിക്കാറ് അല്ലാണ്ട് ഈ പഴയ ജനറൽ നോളഡ്ജ് ബുക്ക് പി എസ് സി എക്സാമിന് അങ്ങനെയുള്ള ബുക്കുകൾ അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിന് പറ്റുന്ന ബുക്കുകൾ അല്ലെങ്കിൽ പഴയ ചോദ്യങ്ങൾക്കും പ്രാധാന്യം അല്ലെങ്കിൽ ആ ബുക്കിലുള്ള കണ്ടൻ്റിന് പ്രാധാന്യം ഉണ്ട് ഇപ്പോഴും എന്നുള്ള ടൈപ്പ് ബുക്ക്സ് മേടിക്കുന്നത് ഈ വിലക്കുറവിൽ കിട്ടുന്ന ഈ സെക്കൻഡ് ഹാൻഡ് വിൽക്കുന്ന ബുക്ക് കടകളിൽ നിന്നായിരിക്കും ഞാൻ എപ്പോഴും വാങ്ങിക്കാറ്